ആ ഹലോ പറയൂ ആ ഓക്കേ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് ആ അതേ എത്ര ദിവസായി തുടങ്ങിട്ട് രണ്ടു ദിവസായിട്ടുള്ളൂ ഓക്കേ ആവി പിടിച്ച് നോക്കിയിരുന്നോ ആ ഓക്കേ ഓക്കേ ആ അങ്ങനെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ടു ദിവസമല്ലേ ആയിട്ടുള്ളൂ ചിലപ്പോൾ തന്നെ അത് അങ്ങോട്ട് മാറും എന്തായാലും ഒന്ന് ആവി പിടിക്ക് മൂന്ന് നേരം പറ്റുമെങ്കിൽ ആവി പിടിക്കുക പിന്നെ അതുപോലെ തല ഒരു രണ്ടു ദിവസത്തേക്ക് ഇനി കുളിക്കണ്ട പിന്നെ മെഡിസിൻസ് ആയിട്ട് ഇപ്പോൾ കാര്യമായിട്ട് ഒന്നും കഴിക്കേണ്ട പനി ഭയങ്കരമായിട്ട് കൂടുതൽ ആവുകയാണെങ്കിൽ മാത്രം ഒരു പാരസെറ്റമോൾ കഴിച്ചോളൂ ആ പിന്നെ ആ തൊണ്ടവേദനയ്ക് ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഗാർഗിള് ചെയ്യുക അങ്ങനെ ഒരു മൂന്നു നേരം ചെയ്താൽതന്നെ തൊണ്ടവേദന ഏറെക്കുറെ മാറും ചുമയും അതിൻ്റെ ഒപ്പം തന്നെ മാറും കഫകെട്ട് ഉണ്ടോ ഇല്ല ഓക്കേ അപ്പം ഇത് ചെയ്യുകയാണെങ്കിൽ അത് മാറും ഇനി അത് മാറിയില്ല കൂടുതലാവുക ആണെന്ന് ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കാണേണ്ട ആവശ്യമുള്ളു ഇപ്പോൾ എല്ലാവർക്കും ഈ സീസണിൽ പനിയും ചുമയും വരുന്നതാണ് അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ നോക്കി ചെയ്താൽമതി ഇനി ഇൻകേസ് കൂടുതൽ ആവുകയാണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റലി വന്ന് കാണിക്കേണ്ടി വരും ആ പിന്നെ പറയൂ ആ ഓക്കേ പിന്നെ നിങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതോ ഇയാൾക്ക് മാത്രം ഉള്ളതാണോ ആ അങ്ങനെ ആണെങ്കിൽ പറ്റുമെങ്കിൽ അവരെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കുക കാരണം അറിയാമല്ലോ പകരുന്ന അസുഖമാണ് അപ്പോൾ ബാക്കി ഉള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ഒന്ന് മാറി നിൽക്കുക അതുപോലെ ഭക്ഷണം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഭയങ്കര ജങ്ക് ഫുഡ് ഒന്നും കഴിക്കേണ്ട ലൈറ്റ് ആയിട്ട് പറ്റുമെങ്കിൽ കഞ്ഞിയോ ചോറോ അങ്ങനെ എന്തെങ്കിലുമായിട്ട്

ഓക്കേ ആ പിന്നെ ആ പറയൂ പറയൂ ആ ഓക്കേ പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്നു വച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും വൈറൽ ഫീവറ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ലയെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അതു കാരണം വൈറൽ ഫീവർ ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും പകരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ഓക്കേ ശരി ആ ഓക്കേ ഓക്കേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ആ ശരി ഓക്കേ